മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല അപ്പം മുറ്റത്തെ ചെപ്പിനടപ്പില്ല കിണർ മുറ്റത്തെ നമ്മുടെ മുറ്റത്താണല്ലോ സാധാരണ കിണറുകൾ കാണുന്നത് ആ കിണറിനടപ്പില്ല അതിനെപ്പറ്റിയുള്ള ഒരു പഴഞ്ചൊല്ലാണ് അല്ലെങ്കിൽ പ്രയോഗമാണ് അത് തെറുത്താലും തെറുത്താലും തീരത്തില്ല അത് തെറുത്താലും തെറുത്താലും തീരത്തില്ലെന്ന് പറയുന്നത് നമ്മുടെ പായൊക്കെ തെറുത്താൽ തീരും അപ്പോൾ തെറുത്താലും തെറുത്താലും തീരത്തില്ലെന്ന് പറയും ആകാശം തെറുത്താലും പറഞ്ഞു തീരാൻ പറ്റാത്ത ഒരു സംഭമാണ് പിന്നെയുള്ളത്